പാചകം എന്നത് ആരെയും ആർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാചകം എന്നത് വളരെയേറെ താല്പര്യമുള്ളൊരു വിഷയമാണ് ചെറിയ പ്രായം മുതലേ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം പാകം ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുണ്ടാക്കുന്നതൊക്കെ നോക്കി ഞാൻ ആ റെസിപ്പീസ് ഒക്കെ പരീക്ഷിച്ചുനോക്കുമായിരുന്നു അങ്ങനെ പഠന കാലത്ത് തന്നെ പലവിധ പദാർത്ഥങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു അതിനു ശേഷം കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ കാസർകോഡ് ശൈലിയുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു കാരണം ഇവിടുത്തെ പാചകരീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് അതുമായി പൊരുത്തപ്പെടാനും ആ പാചക വിദ്യകൾ പഠിച്ചെടുക്കാനും കുറച്ചേറെ സമയമെടുത്തു പക്ഷേ എന്നെ വളരെയേറെ ആകർഷിച്ചത് കാസർകോഡ് കറികളും സാമ്പാർ അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു മാത്രമല്ല കാസർകോഡ് മീൻകറിയും നോൺ വെജ് പദാർത്ഥങ്ങളും ഒക്കെ വളരെയേറെ ഇഷ്ടമായിരുന്നു അതിനാൽ ഞാൻ ഭർത്താവിൻ്റെ അമ്മയിൽനിന്നും അതിൻ്റെ പാചക വിദ്യകളെല്ലാം പഠിച്ചെടുക്കുകയും പിന്നീട് അതെല്ലാം സ്വന്തമായി താമസിക്കുന്ന സമയത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിനിടയിൽ എൻ്റെ എനിക്ക് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ ഏത് പാചകം വേണമെങ്കിലും വളരെ വ്യക്തമായും വൃത്തിക്കും ചെയ്യാനായിട്ടുള്ള മാർഗ്ഗനിർദേശങ്ങൾ പലരും ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇന്നിപ്പോൾ പാചകമൊരു വെല്ലുവിളിയേ അല്ല ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം യൂട്യൂബിലടിച്ചു കഴിഞ്ഞാൽ ഏതു പാചകവിദ്യയും നമുക്ക് ഒന്നിലേറെ റെസിപ്പീസ് നമ്മുടെ കയ്യിൽ കിട്ടും അത് ഭംഗിയായി ചെയ്യുക എന്നത് മാത്രമേ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ

ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഒരു ക്രിസ്മസ് സമയത്താണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് ശ്രമിക്കുന്നത് അങ്ങനെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ റെസിപ്പികൾ നോക്കുകയും അതിലൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിനു ആവശ്യമായ ചേരുവകളും മറ്റും എടുത്തു നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഞാൻ ഉപയോഗിച്ച വസ് റെസിപ്പീസിൻ്റെ അനുപാതം ശരിയായിരുന്നില്ല എന്ന് തോന്നുന്നു കാര നമ്മൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ശരിയായ അനുപാതത്തിൽ വന്നെങ്കിൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയി കിട്ടുകയുള്ളു പൂർണമായും ശരിയാവുകയുള്ളൂ പക്ഷേ ഞാൻ ഉപയോഗിച്ചതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ അതായത് ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടിപ്പോവുകയും അതിൻ്റെ ട്രെ പെർഫെക്ഷൻ കിട്ടാതെ പോവുകയും എനിക്കത് ഒരിക്കലും എനിക്കത് ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ഒരു മണിക്കൂർ സമയത്തെ അധ്വാനം വെറുതെ പാഴായി പോവുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഭയങ്കരമായ ഒരു വിഷമം ഉണ്ടായിരുന്നു സാധനങ്ങളെല്ലാം പോയി സമയം പോയി അങ്ങനെ വളരെയേറെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് ഞാൻ ഉണ്ടാക്കിക്കൊടുക്കാം എന്ന് പറഞ്ഞ എൻ്റെ മകനോടിനി എന്ത് പറയും എന്ന് വിചാരിച്ച് എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം എവിടെയാണ് പാളിച്ചപറ്റിയത് എന്ന് ശ്ര നോക്കിയിട്ട് അത് നന്നായി ഒന്നുകൂടി ശ്രമിച്ച് നോക്കാം അത് തിരുത്താൻ വേണ്ടി ഞാൻ ഉടനെ തന്നെ അടുത്ത ഒരു ശ്രമവും കൂടി നടത്തി നോക്കി അപ്പം ബാക്കിയുണ്ടായിരുന്ന ആ മൈദ മുട്ട അതേപോലെയുള്ള സാധനകളുപയോഗിച്ച് ഞാൻ വളരെ ശ്രദ്ധാപൂർവം അതിൻ്റെ അനുപാതം ആദ്യമായി എഴുതിവെച്ചു ഞാൻ ആദ്യം ചെയ്ത സമയത്ത് അത് മനക്കണക്കിൽ ഞാൻ എടുക്കുകയാണ് ചെയ്തത് അതിന് ശരിയായ അളവ് ഞാൻ ഉപയോഗിച്ചിരുന്നില്ല അപ്പോഴെനിക്ക് തെറ്റ് മനസ്സിലായി എന്താണ് എവിടെയാണ് പാകപ്പിഴ എന്നത് കാരണം നമ്മൾ ഏത് സാധനം ഏത് പാചകത്തിന് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ശരിയായ അളവിൽ മാത്രമേ അതിൻ്റെ ചേരുവകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മനസ്സിലായപ്പോൾ ഞാൻ ഞാൻ അതിനു വളരെ വ്യക്തമായ രീതിയിൽ ആ വീഡിയോ ഭംഗിയായി കണ്ടതിന് ശേഷം മാത്രം ആദ്യമായി അളവുകളെടുത്ത് സജ്ജീകരിച്ചു ആവശ്യമായ സാധനങ്ങൾ കൃത്യമായ അളവിലെടുത്ത് ആ ആനുപാതികമായ ചേരുവകൾ ചേർത്ത് മിക്സ് ചെയ്തു അതപ്പോൾത്തന്നെ എനിക്ക് അതിൻ്റെ ടെക്ച്ചർ കണ്ടപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് വന്നു ഒരാത്മവിശ്വാസം വന്നു എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് പിന്നീട് ഞാന് അത് മിക്സ് ചെയ്തു നന്നായി ബേക്ക് ചെയ്തു കേക്ക് നല്ല വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിൽനിന്നും ഞാൻ പഠിച്ചൊരു കാര്യം നമ്മൾ ഒന്നോ രണ്ടോ കാര്യം ചെയ്യുമ്പോൾ ഒരുപക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും അത് നന്നായി വരണമെന്നില്ല പക്ഷേ അതിനു അപ്പോൾത്തന്നെ നമ്മളത് ഉപേക്ഷിച്ച് ഇനിയെനിക്കത് ചെയ്യാൻ കഴിയില്ല ഇനി എപ്പോൾ ഞാൻ ചെയ്താലും അത് തെറ്റായി വരും എന്ന ചിന്താഗതി മാറ്റിയിട്ട് എനിക്കത് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മ വിശ്വാസത്തോടെ ശരിയായ അളവിൽ ആനുപാതികമായ മെഷർമെൻ്റ് അതായത് ശരിയായ അളവ് അത് വളരെ അത്യന്താപേക്ഷിതമാണ് പാചകത്തിൽ അപ്പോൾ ശരിയായ അളവ് എടുത്തിട്ട് നമ്മളതിനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു നമ്മളുദ്ദേശിച്ച സംഭവം ഉണ്ടാക്കിയെടുക്കാനായി കഴിയും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത കേക്ക് നന്നായി ബേക്ക് ആയി വന്നപ്പോൾ അത് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രെസൻ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അതിനു ശേഷം ഞാൻ പല പല പല വ്യത്യസ്തങ്ങളായ പാചക വിധികളും പല എനിക്കിഷ്ടപ്പെട്ട റെസിപ്പികൾ പരീക്ഷിച്ചു നോക്കി ഞാനത് വിജയത്തിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുവഴി നമ്മൾ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിനപ്പുറം ഒരു നല്ലൊരു സന്തോഷം നമുക്ക് എന്താണ് കിട്ടാനുള്ളത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും വ്യത്യസ്തങ്ങളായ പാചക വിദ്യകൾ പരീക്ഷിക്കാനാഗ്രഹിക്കുന്ന ഒരാളാണ് അത് കഴിവതും ഞാൻ മറ്റേ ട്രഡീഷണൽ ആയ പാചക വിധികൾ പാരമ്പര്യമായി നമുക്ക് കൈമാറിക്കിട്ടിയ പാചക വിധികൾ പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കാലം മാറുമ്പോൾ നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് മാറണമല്ലോ പുതിയതായി വന്നിട്ടുള്ള തലമുറകൾ തലമുറയിലെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചും ചെയ്യേണ്ടി വരും കാരണം ഇന്നത്തെ തലമുറകൾക്ക് നമ്മൾ പാരമ്പര്യമായി നമ്മളുപയോഗിക്കുന്ന ആ ഒരു ചേരുവകൾ എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല ആയതിനാൽ പുതിയ രീതിയിലുള്ള പാചക വിദ്യകളും ഞാൻ പരീക്ഷിക്കാറുണ്ട് അതിൽ എനിക്കേറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുന്നത് ദം ബിരിയാണിയാണ് അത് ഞാൻ വളരെ നന്നായി ചെയ്യും തലശ്ശേരി ദം ബിരിയാണി എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അല്ലാതെ പലപ്പോഴും ദം ഇട്ടു അത് കരിഞ്ഞു പോവുക ഒക്കെ ചെയ്യാറ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കത് ഒരുവിധം നന്നായിത്തന്നെ ചെയ്യാൻ പറ്റും അതിൻ്റെ അളവുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റും ദം ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നാൽ ആ അളവ് നമ്മളുപയോഗിക്കുന്ന ആ വസ്തുക്കളുടെ അളവിൽ എന്തെങ്കിലും വ്യത്യസ് വ്യത്യാസം വന്നാൽ അതെല്ലാം കം മുഴുവനായും ആ ബിരിയാണിയെ ബാധിക്കും അതിൻ്റെ മണത്തെയും ഗുണത്തെയും ഒക്കെ ബാധിക്കും ആയതിനാൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ തുടർച്ചയായി കുറച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നന്നായി ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്ത് പരിചയിച്ചു വരുമ്പോൾ നമുക്ക് അളവുകളെല്ലാം മനഃപ്പാഠമായിരിക്കും പിന്നെ അതിൽ മറ്റു തെറ്റുകുറ്റങ്ങളൊന്നും വരാനുള്ള സാധ്യത ഇല്ല അത് എനിക്ക് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് കഴിക്കുന്നതും ഒന്നാണ് തലശ്ശേരി ദം ബിരിയാണി അതിപ്പോഴും ഞാൻ എന്തെങ്കിലും പരിപാടികളൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ കുറെയേറെ ആളുകൾ വന്നാലും എനിക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട് അളവുകളൊക്കെ എടുത്ത് കൃത്യമായിത്തന്നെ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ പാചകത്തിൽ എനിക്ക് വളരെ താല്പര്യമാണ് ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്